ആ ഓക്കെ ആ ഓക്കെ ലാബ് ആണല്ലേ നമുക്ക് ഇപ്പം അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ക്ലോത്ത് ഈ കോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അതായത് ഫുൾ ആ അതായത് ഉള്ളിലുള്ള ഈ രോമങ്ങൾ ഒക്കെ കൊഴിയാനായി കിടക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗ്രൂം ചെയ്യുമ്പം അത് ഇതാക്കി എടുക്കാൻ പറ്റും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ആ ഓ പിന്നെ നെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യും പിന്നെ വായ് സ്മെൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ടീത്തും കാര്യങ്ങൾ ഒക്കെ നമ്മൾ നല്ല വൃത്തിയാക്കി തരും കുളിപ്പിക്കുന്നതും പട്ടീനെ നല്ല കുളിപ്പിച്ച് നല്ല നീറ്റ് ആക്കിത്തരും അങ്ങനത്തെ ഒക്കെ ആണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ കടിക്കുന്നതിന് ഇപ്പം നമുക്ക് അങ്ങന കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ ഇല്ല കാരണം നമുക്ക് ഫേസ് മാസ്ക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടേ നമുക്ക് അതിനെ ഇതാക്കാൻ ഗ്രൂം ചെയ്യാൻ പറ്റൂള്ളൂ അങ്ങനെ അഗ്രസീവ് ആവുകയാണെങ്കിൽ നമുക്ക് വേറൊന്നും അങ്ങനെ ഓവർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് അല്ലാണ്ട് മൗത്തിലേക്ക് ഓവർ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അഗ്രസീവ് ആണെങ്കിൽ കൂടുതലും നമുക്ക് എന്താണ് പറയുക അഴിച്ച് പുറത്തുകൂടെ വിടുക അപ്പോഴാണ് അതിന് കുറേ ഒക്കെ കടിക്കാണ്ട് ഇതാവൂ ലാബ് അങ്ങനെ കൂടുതൽ അഗ്രസീവ് ആവാൻ ചാൻസ് കുറവാണ് ആ ഭയങ്കര ടെറർ ആവുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങൾ ജസ്റ്റ് ഡെയിലി ആ അപ്പം നിങ്ങൾ ഡെയിലി അഴിച്ച് വിടുക പിന്നെ പട്ടീനെ അങ്ങനെ എന്തെങ്കിലും ബോളോ കാര്യങ്ങളൊക്കെ അതിന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് അതിൽ കൂടുതൽ ആയിട്ടും അങ്ങനെ കടിച്ച് ഇതായി നോർമലി സെറ്റ് ആയിക്കോളും അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഉണ്ടാവുന്നൊരു ഇതാക്കാൻ പറ്റുള്ളൂ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ ട്രെയിൻ ചെയ്യിക്കാൻ നമുക്ക് ആൾ ഉണ്ട് അപ്പം നിങ്ങൾ എങ്ങനെ ആണ് കമാൻഡ്സ് മാത്രം ആണോ അതോ ഈ പുറത്ത് ഗൈഡ് ഡോഗ് ആയിട്ട് കൊണ്ടുപോവാൻ ആണോ

ആ ഓക്കെ കമാൻഡ്സ് മാത്രം ആണെങ്കിൽ ആ അഴിച്ച് വിടുമ്പം ആ സിറ്റ് ആ അങ്ങനത്തെ കമാൻഡ്സ് മാത്രം ആണെങ്കിൽ നമുക്ക് പഠിപ്പിച്ച് എടുക്കാൻ ഓവർ ടൈം ഒന്നും വേണ്ട പിന്നെ അത് ബേബി ഏജ് ആയ ഡോഗ് ആണോ അതോ ബേബി പർപ്പസ് ഇതാണോ സ്മോൾ ആണ് ചെറുതാണ് അല്ലേ ഓക്കെ അപ്പം നമുക്ക് ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നിങ്ങൾ വന്ന് നിൽക്കുവാണോ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമാൻഡ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് എടുക്കാൻ പെട്ടെന്ന് തന്നെ പറ്റും കാരണം നമ്മൾ ഓരോ കമാൻഡ്സും പഠിപ്പിക്കുമ്പം നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം നമുക്ക് അത് പ്രൊഫഷന് ഇതാണല്ലോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ട്രെയിൻ ചെയ്യിച്ചിട്ട് നിങ്ങളോട് വന്ന് ചെയ്യാൻ പറയാം അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യ് ബാക്കി നോക്കിയാൽ മതി ഓക്കെ എന്നാൽ നാളെ നിങ്ങൾ വന്നോളൂ നമുക്ക് നാളെ ചെയ്യാം